ഇപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഭാഷ സംസാരിക്കുന്നതിന് മലയാള ഭാഷയ്ക്ക് അങ്ങനെ വലിയ പ്രധാന്യമൊന്നും കൊടുക്കുന്നില്ല കാരണം അങ്ങനെ എല്ലാവർക്കും മലയാളം ഈസി ആയിട്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല സംസാരിക്കുമ്പൊക്കേ ഭയങ്കരയിട്ട് ചില വാക്കുകളൊന്നും അവർക്ക് കിട്ടില്ല സംസാരിക്കാൻ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പഠിക്കാന്ന് പറഞ്ഞാൽ മലയാളം ഏറ്റവും കൂടുതൽ പേര് ഇംഗ്ലീഷ് തന്നെയാണ് ഈസി ആയിട്ട് ആക്സിസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മള് മലയാള ഭാഷ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് നമ്മള് മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വരുന്നത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനത്തിലുള്ളവരാണ് കുറച്ചും കൂടെ മലയാള ഭാഷാ കുറച്ചും കൂടെ ആശയ വിനിമയം വച്ച് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ തമിഴ്നാട്ട്കാര് പിന്നെ ഒന്ന് കർണ്ണാടകക്കാര് ഇവരാണ് നമ്മുടെ മലയാളഭാഷ കുറച്ചും കൂടെ എളുപ്പത്തില് നമ്മള് അങ്ങോട്ട് പറയുവാണെങ്കിലും അവർക്ക് മനസ്സിലാവുള്ളു ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ പെട്ടന്ന് മനസ്സിലാവില്ല നോർത്ത് ഇന്ത്യേയിലൊക്കെ പോയി പറഞ്ഞാൽ അവർക്കൊന്നും തീരെ മലയാളം മനസ്സിലാവണമെന്നില്ല പക്ഷെ നമ്മള് സ്ഥിരവായിട്ട് മലയാ ഹിന്ദിക്കാരൊക്കെ കേരളത്തിൽ വന്ന് അഞ്ചാറ് കൊല്ലം ജോലി ചെയ്തവരും മലയാളമൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അവർക്കൊന്നും എല്ലാ ഭാഷയൊന്നും എല്ലാ വാക്കുകളും വഴങ്ങില്ല ഇപ്പോൾ അവരൊക്കെ മഴാന്ന് പറയുന്നതിന് പകരം മയാന്നൊക്കെ പറയുള്ളു അങ്ങനെ എല്ലാ വാക്കുകളും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അതുപോലെ ഈ തമിഴന്മാരാണെങ്കിലും അവർക്ക് മഴ എന്നതിന് മള എന്നേ പറയുള്ളു അവർക്ക് ഴ വഴങ്ങില്ല അങ്ങനെ ഒരുപാട് ഇതൊണ്ട് അവർക്കീ മാറ്റ് ഭാഷയെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ ഭാഷ സംസാരിക്കാൻ ഈ ആശയ വിനിമയത്തിനൊന്നും മലയാളം അധികം ഉപയോഗിക്കാൻ പറ്റില്ല ചെറുതായിട്ട് നമ്മള് പറഞ്ഞിങ്ങനെ ആംഗ്യ ഭാഷയില് കാണിക്കുന്നതവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ബാക്കി നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് തന്നെയാണ് കംഫർട്ടബിൾ എല്ലാവർക്കും ഒരു വിധം എങ്കിലും കുറച്ച് മനസ്സിലാകും ഇംഗ്ലീഷ് അല്ലങ്കിൽ പിന്നെ ഹിന്ദിയാണ് കുറച്ചും കൂടെ ബെറ്ററ്